പൂന്തോട്ടം കാണാനൊക്കെ നല്ല രസമാണ് പക്ഷെ അത് കൊണ്ടുനടക്കാൻ നല്ല പ്രയാസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കൊതുക് ഉണ്ടാകും കീടങ്ങളും പാമ്പ് പോലെത്തെ ചെറിയ പാമ്പുകളും എല്ലാം ഉള്ള ഉണ്ട് വൈകുന്നേരമായാൽ നല്ലവണ്ണം കൊതുക് വരും ചിലപ്പം ചെറിയ കൊതുകും വലിയ കൊതുകും ചെറിയ ചെറിയ ഈച്ചകൾ പോലുള്ളത് വരും ചില സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ദിനവും വെള്ളം നനച്ചുകൊടുക്കണം വേനല്ക്കാലത്താവുമ്പോൾ നല്ലവണ്ണം നനച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും മഴക്കാലത്ത് ആണെങ്കിൽ നല്ലവണ്ണം വെള്ളം കിട്ടി ചീഞ്ഞ് പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല പണിയാണ് പൂന്തോട്ടമൊക്കെ കൊണ്ട് നടക്കാൻ ഇവിടെ കുറേ മരച്ചെടികളാണ് നല്ലത് ബുദ്ധിമുട്ടൊന്നും ഇല്ല വെള്ളം നനക്കേണ്ട ഈച്ച ഈച്ചശല്യം കൊതുകൊന്നും അധികമൊന്നും വരില്ല ചീഞ്ഞ് പോവില്ല വെള്ളം വാർന്നുകൊടുക്കണം എന്നില്ല അതൊക്കെ ഗുണങ്ങളാണ് പൂന്തോട്ടം കാണാൻ തന്നെ നല്ല രസമാണ് കുറേ പൂക്കളും ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ലവണ്ണം രസമാണ്